ആ ഹലോ അത് ഞാൻ നിങ്ങളെ റെസ്റ്റോറെന്റിൽ നിന്ന് കുറച്ചു സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് ഐറ്റംസ് ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത് അതൊരു പത്ത് പേർക്കുള്ള പൊറോട്ടയും പിന്നെ പതിനഞ്ച് പേർക്കായിട്ട് ബിരിയാണിയായിട്ട് ആണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഞാനത് എനിക്ക് അത്ര ആവശ്യമില്ല ഇപ്പോൾ അത് വെച്ചിട്ടുണ്ടങ്കിൽ ഇപ്പോൾ പൊറോട്ടാ പത്ത് റ പതിനഞ്ച് പൊറാട്ടയിൽ അഞ്ച് പൊറോട്ട ക്യാൻസലാക്കണം അത് ബിരിയാണി ഒരു അഞ്ച് ബിരിയാണി ആക്കിയിട്ടും കുറക്കണം അത് ഈ ചെറിയൊരു ഫങ്ക്ഷൻറെ ആവശ്യത്തിന് വേണ്ടീട്ടായിരുന്നു ഞാനീ ഓർഡർ ചെയ്തത് ചില സാഹചര്യം മൂലം അത് കുറച്ചു പേരെ എത്താണ്ടായി എത്തൂല്ല എന്നുള്ള വിവരം കിട്ടിപ്പോയി ചില പ്രശ്നങ്ങൾ മൂലം എത്തൂല്ല എന്നുള്ളത് അപ്പോൾ എനിക്ക് അത്രയും ഫുഡിൻ്റെ ആവശ്യമില്ല ഓർഡർ ചെയ്തപ്പോൾ ആവശ്യമുണ്ടായിരുന്നു പക്ഷേ ഇത്രയും ഫുഡിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ കാർ നിങ്ങളെ ആ ആപ്പിൽ കേറിയിട്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കാർട്ടിൽ നിന്നും കാർട്ട് ചെയ്തിട്ടുണ്ടായി ആ കാർട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് നീക്കം ചെയ്യാൻ ഹെല്പ് ചെയ്യണം പിന്നെ എനിക്ക് ഫുഡ് ആണല്ലോ ഓവർ വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് അത് എങ്ങനെയെങ്കിലും ഒന്ന് ഐറ്റം കുറക്കണം ക്വാണ്ടിറ്റി കുറച്ചു തന്ന നല്ലതായിരുന്നു നിങ്ങളെ ആപ്പിൽ കയറി ചെയ്തതാണ് അത് ഞാൻ ഈ കാർട്ടിൽ സേവ് ചെയ്തിട്ടുണ്ട് അതൊന്നും കാർട്ടിൽ നിന്ന് നീക്കം ചെയ്ത് തരണം